ആ പറഞ്ഞോ അതെ ബ്രോക്കർ ആണല്ലോ പത്ത് സെൻറ് സ്ഥലം പത്ത് സെൻറ് സ്ഥലം എങ്ങനെ ഈ മെയിൻ റോഡ് സൈഡിൽ വേണോ അതോ കുറച്ച് ഉള്ള് ഉള്ളിലുള്ള പഞ്ചായത്ത് റോഡിലൊക്ക മതിയോ റോഡ് ആ റോഡ് സൗകര്യമുള്ള പഞ്ചായത്ത് റോഡ് ഉള്ള സൗകര്യം ഉണ്ട് അവിടെ ആവുമ്പം കുറച്ച് വില കുറയും സെൻറിനൊക്കെ ഒരു രണ്ട് ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയൊക്കെ ആവുള്ളൂ മെയിൻ റോഡിൽ ആണെങ്കിൽ അഞ്ചും ആറും ലക്ഷം രൂപ ആവും ല ഉള്ളിലോട്ട് ആ ആ അപ്പോൾ ഒരു രണ്ടര രണ്ട് ലക്ഷം രൂപ വില ഉള്ളത് ഉണ്ട് കസ്റ്റഡിയിലുണ്ട് ആ സമചതുരത്തിലാണ് ഇരിക്കുന്നത് അത്ര കറക്റ്റ് സമചതുരം അല്ല എങ്കിലും ഒരു ശകലം ഒരു ഒരു സൈഡ് അത് മുപ്പത് മീറ്റർ ഉണ്ട് ഒരിടത്ത് ഒരു ഇരുപത്തിയാറ് എങ്ങാണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ സമചതുരം പോലെ തോന്നും ഏ ഇല്ല ഇല്ല ചരിവൊന്നുമില്ല ചരിവൊന്നുമില്ല പിന്നെ അവിടെ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും കാരണം അടീടിയിൽ പാറയൊന്നും ഇല്ല കാരണം അതിൻ്റെ തൊട്ട് അങ്ങോട്ട് മാറി ഒരു ഒരു ഫർലോംഗ് മാറി കണ്ടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് വെള്ളമൊക്കെ കിട്ടും വെള്ളത്തിൻ്റെ കാര്യത്തിൽ അധികം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സ്ഥലമാണ് നിങ്ങൾക്കാ അത് വാ പത്ത് സെൻറ് പത്ത് സെൻറ് വാ പത്ത് സെൻറ് വാങ്ങിച്ചിട്ട് പെര വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ആ അപ്പൊ എൻ എന്നത്തേക്ക് ആധാരം എഴുതാനായിട്ടൊക്കെ എന്നത്തേക്ക് കച്ചവടം നടത്താൻ കാശൊക്കെ റെഡി ആയിട്ടുണ്ടോ അതോ ബാങ്ക് ലോൺ വല്ലതും ആണോ അതിനകത്ത് ആകെ രണ്ട് തെങ്ങേ ഉള്ളൂ പിന്നെ ര് ഒരു പ്ലാവുണ്ട് രണ്ട് മാവുണ്ട് പിന്നെ വാഴയൊ വാഴയൊക്കെയാണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ ലോറി വരും ആ പഞ്ചായത്ത് റോഡ് ഉണ്ട് പഞ്ചായത്ത് റോഡിൽ കൂടെ നമ്മുടെ പറമ്പിലോട്ട് തന്നെ ലോറി കയറും അതിനൊന്നും കുഴപ്പം ഒന്നുമില്ല അതൊക്കെ ഉണ്ട് ആ രണ്ട് ലക്ഷം രൂപ വെച്ചാവും ഇതിന് അതിന് വിലയ്ക്ക് വ്യത്യാസം ഒന്നുമില്ല രണ്ട് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പത്ത് സെൻറ് ആവുമ്പം പയറ്റിരണ്ട് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ ആധാര ചിലവും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ വഹിക്കണം നമുക്ക് അതൊന്നും ഉത്തരവാദിത്വം ഇല്ല അതൊക്കെ എടുത്തെല്ലാം വേണ്ടുവോണം ഒക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങളുമൊക്കെ അതിനൊക്കെ എല്ലാ ചിലവുകളൊക്കെ എല്ലാം നിങ്ങൾ വഹിച്ചോണം എനിക്ക് ആ നിങ്ങൾ സ്ഥലം വന്ന് കാണ് ഏറ്റവും നല്ല സ്ഥലം നല്ല സ്ഥലം ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഇതിലുള്ള സ്ഥലമാണ് അതിങ്ങനെ കിടക്കവിടെ അതിൻറെ അപ്പുറത്താണെങ്കിൽ കടകൾ അങ്ങോട്ടൊരു ഫർലോംഗ് വേണ്ട അതിനകത്ത് കടകളുണ്ട് ഇപ്പുറത്ത് മാറി ജൗളി കടയുണ്ട് അങ്ങനെ വർക്ക്ഷോപ്പ് ഒരെണ്ണം ഉണ്ട് അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ട് അടുത്തടുത്ത് പിന്നെ ഈ വസ്തുവിൻ്റെ തന്നെ അടുത്ത് പുറക് വശത്തും ഒരു വീട്ടുകാരുണ്ട് ഈ പടിഞ്ഞാറേ സൈഡിലും കിഴക്കേ സൈഡിലും രണ്ട് വീട്ടുകാരുണ്ട് അതെല്ലാം കൊണ്ട് എല്ലാവർക്കും അതുകൊണ്ടും നല്ലതാണ് പള്ളിയുണ്ട് ആണല്ലോ കുന്നന്താനം ഏരിയയിൽ തന്നെയാണ് ആ അതുകൊണ്ട് കുഴപ്പം ഒന്നുമില്ല അതിൻ്റെ അപ്പുറത്ത് തന്നെ റബ്ബർ തോട്ടം കിടപ്പുണ്ട് പിന്നെ അവിടുന്ന് മഠവുണ്ട് ഇപ്പുറത്ത് പള്ളി ഇവിടെ കുന്നാരം പള്ളിയുണ്ട് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ എന്നാൽ ശരി എന്നാൽ ഏ ആ ഓക്കെ വന്ന് കാണ് കാണുക കാണുക ആ ശരി എന്നാൽ ഓക്കെ